നമ്മള് അങ്ങനെ ഗൂഗിള് മാപുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മള് ഇപ്പം എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാത്ത വഴിയില് എന്തെങ്കിലും നമ്മക്ക് ഒരു ഡൗട്ട് വന്നാൽ തന്നെ നമ്മള് വേഗം ഫോണെടുത്ത് അയില് ഗൂഗിള് ഓപ്പണ് ചെയ്തിട്ട് അതില് മാ മാപ് നമ്മള് എവിടെയാ ഉള്ളത് സ്ഥലം എന്നു വച്ചാല് അവിടെ വ മുതലുള്ള വഴികളാണെങ്കിലും നമ്മള് ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കില് മുതല് ഇവിടം മുതലുള്ള അവിടെ എത്തുന്ന വരെയുള്ള വഴികളൊക്കെ നമ്മക്ക് ഗൂഗിളിലൂടെ മാപ് ഗൂഗിള് മാപിലൂടെ നമുക്ക് കാണാനും നമുക്ക് ഏത് വഴിയ്കാണ് പോകേണ്ടത് എന്നൊക്കെ നമ്മള് പൊയ്കൊണ്ടിരിക്കുമ്പം കാറിലാണേൽ ബൈക്കിലാണേൽ നമ്മള് പൊയ്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമക്ക് വഴികളൊക്കെ പറഞ്ഞു തരുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ഗൂഗിള് മാപുകള് ഗൂഗിള് മാപ് എന്നു പറഞ്ഞാല് നല്ലൊരു ഉപകാരമുള്ള അപ്പ് ആണ് നമ്മള് ഇപ്പോൾ എവിടെയെങ്കിലും പോകുകയാണെങ്കില് എവിടെയെങ്കിലും കുടുങ്ങി നിക്കുവാണെങ്കിലും നമ്മക്കിപ്പം അറിയുന്നില്ല ഏതാ നമ്മളും വഴിയൊക്കെ തെറ്റി നിക്കുകയാണെങ്കില് നമ്മള് ഇനി എങ്ങോട്ടാണ് പോകണ്ടത് എന്ന് അറിയാത്ത ഒരു അവസ്ഥ വരും ആ സമയത്ത് നമക്ക് വേഗം ഫോണെടുത്ത് ഫോണില് പൈസയോ റീചാര്ജൊക്കെ ഉണ്ടെങ്കില് വേഗം ഫോണെടുത്ത് ഗൂഗിള് മാപ് ഓപ്പണ് ആക്കി നോക്കുക നമ്മള് എവിടെയാണ് ഉള്ളതെന്ന് നമ്മള് ഇനി ഇൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഇനി ഏതാണ് ഏത് വഴി കൂടെയാണ് പോകേണ്ടത് എന്നൊക്കെ നമുക്ക് ഗൂഗിൾ നമക്ക് പറഞ്ഞ് മനസിലാക്കി തരും